ഇന്ത്യയിലെ ഗതാഗത സംവിധാനം സാധാരണ ആയ ആളുകള് ഉപയോഗിക്കുന്നത് സാധാരണക്കാരൻ ബസ്സില് ട്രെയിനിലുമൊക്കെ പോകുന്നു സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ പ്ലെയിനെ കയറുന്നു അല്ലാത്തവര് കാര് സ്വന്തമായിട്ടുള്ളവര് അവര് അങ്ങനെ യാത്ര ചെയ്യും സ്കൂട്ടര് ബൈക്ക് അതൊക്കെ ഉള്ളവര് അതേ പോവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അടുത്തൊക്കെ പോകുന്നതിന് അവർക്ക് ബസ്മാർഗ്ഗം ആണ് ഏറ്റവും നല്ലത് എന്നാൽ അതിനു നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോള് ഡ്രൈവർമാര് നമ്മളെ സുരക്ഷിതമായി നമ്മള് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുമെന്ന് ഉള്ളത് ഇന്നത്തെ കാലത്ത് യാതൊരു വിശ്വാസവുമില്ല അതുകാരണം ഒന്നാമത് ഈ ട്രാൻസ്പോർട്ട് ബസുകൾ എല്ലാം പലതും പഴയ വാഹനങ്ങളാണ് ഇടയ്ക്കുവച്ച് നിന്നുപോവും ഡ്രൈവർമാരാണെങ്കിൽ അശ്രദ്ധയോടുകൂടിത്തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഏത് ഗട്ടര് കണ്ടാലും കുഴി കണ്ടാലും ചാടിച്ചേ പോകുള്ളൂ അത് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അതുപോലെതന്നെ എല്ലാം നല്ല വൃത്തിയും മെനയുള്ള ബസുകൾ ഓടിക്കുന്നത് കാര്യം അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ട്രെയിൻ യാത്രയാണെലും നമ്മൾ ഇപ്പോള് ഒരു ദിവസത്തെയോ രണ്ടു ദിവസത്തെയോ ട്രെയിൻ യാത്ര പോണ്ടിയാണെങ്കിൽ നമ്മള്ക്ക് ബസ്സിനെക്കാളും നല്ലത് ട്രെയിനാണ് പക്ഷെ അപ്പോള് എ സിയിലൊന്നും പോകാനുള്ള സാധാരണക്കാരന് പറ്റുകേല അവര് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറും അവിടെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ബാത് റൂം ഒന്നും ശരിയല്ല അതുപോലെ നമുക്കാ സീറ്റ് അതും ഒന്നും നല്ല കണ്ടീഷൻ അല്ല മൂട്ടയുടെ ഉപദ്രവവും മറ്റുള്ള പലപല ശല്യങ്ങള് അതിനൊക്കെ ഒരു മാറ്റം എപ്പോഴും അത്യാവശ്യമാണ് അതുപോലെ തന്നെ ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ ഗവൺമെൻ്റ് അല്പം കൂടെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കിട്ടും തീർത്തും ഈ മോശമായിട്ടുള്ള വെള്ളം കുടിവെള്ളം കിട്ടുന്ന പോലും ഏറ്റവും മോശമായിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോള് ട്രെയിനിലെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാവും ഇപ്പോ ലോ ക്ലാസാണെലും ബർത്ത് കിട്ടി അവിടെ കിടന്നാല് പോലും നമുക്ക് സുരക്ഷിതമായിട്ട് അവടെ കിടക്കാം എന്ന ഒരു ധൈര്യമില്ല പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോള് അതിനൊക്കെ ഒരല്പം കൂടെ ഊ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നൊരു യാത്ര മെച്ചപ്പെടുത്തി തരേണ്ടതാണ്